ഹലോ ഉണ്ണിയല്ലേ ആ ഇത് നിങ്ങളുടെ ട്രാവൽ ഏജൻസി എനിക്ക് കാസർഗോഡ് പോകാനുണ്ടായിനി കാസർഗോഡ് മറ്റേ ആട മാലിക് ദിനാറും പിന്നെ ബേക്കൽ ഫോർട്ടും എങ്ങനെ അതിൻ്റെയൊരു പ്ലാൻ പറഞ്ഞുതാ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിട്ട് നെക്സ്റ്റ് സൺഡേ

ഞാന് ഇവിടെ മംഗലാപുരം മംഗലാപുരം മറ്റേ ഉള്ളാളം എല്ലാം കഴിഞ്ഞിട്ടായിട്ട് അപ്പുറം പോവണം ഉള്ളിലോട്ട് പോവണം ഉള്ളാളത്തിൽനിന്ന് മറ്റേ ഉള്ളാളം പാലമെല്ലാം ഇല്ലേ പള്ളിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് റൈറ്റ് സൈഡ് ഉള്ളിലോട്ട് പോവണം

മാലിക്ക് ദിനാറും ബേക്കൽ ഫോർട്ടും നമ്മൾ ഒരു മൂന്നുദിവസം ഉണ്ടാവും ആട അപ്പോൾ മൂന്നുദിവസത്തിലേക്ക് നിൽക്കാനുള്ള സ്ഥലവും പിന്നെ പിന്നെ വേറെ ഏതും നല്ല സ്ഥലമുണ്ടെങ്കിൽ ആട കാസർഗോഡ് ചുറ്റുഭാഗത്ത് അതിപ്പോൾ അതെന്താണ് നിങ്ങൾ നമ്മൾ അഞ്ചാൾക്കാരുണ്ടാവും വൈഫും മക്കളെല്ലാം ഉണ്ടാവും അഞ്ചാൾക്കാർ വൈഫും മൂന്ന് മക്കളും ഉണ്ടാവും ആ ആ മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടി ഞാനും വൈഫും മൂന്ന് മക്കളും രണ്ട് റൂം ആണ് കുട്ടികൾക്ക് സെപറേറ്റും ഞങ്ങൾക്ക് സെപ്പറേറ്റും ആ നല്ല ഫൈവ് സ്റ്റാർ പോലത്തെ ആ സൺഡേ മൺഡേ ട്യുസ്ഡേ ഈ മൂന്ന് ദിവസം സൺഡേ മൺഡേ ട്യുസ്ഡേ ആ മൂന്ന് ദിവസമായിരിക്കും ഞങ്ങൾ ഉണ്ടാവുന്നത്

ആ കാസർഗോഡ് മാലിക്ക് ദിനാർ ആ ബീച്ച് ബേക്കൽ ഫോർട്ട് പള്ളിക്കര ആ നിങ്ങൾക്ക് എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത് എത്ര

തേർട്ടി തൗസൻഡോ എന്ത് തേർട്ടി ഒന്നും ഉണ്ടാവില്ലല്ലോ വെറും മൂന്നുദിവസത്തേക്ക് ഞാൻ ബേക്കൽ ഫോർട്ട് ഞങ്ങൾ വരുന്നതല്ല ഇരുപത്തഞ്ചായിരം റുപ്യ തരാം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഇരുപത്തഞ്ചായിരം റുപ്യ ഇരുപത്തഞ്ച് ആ ഇരുപത്താറ് ഇരുപത്താറ് ആ ഇരുപത്തെട്ട് തരാം ഇരുപത്തേഴ് അഞ്ഞൂറ് ആ ആ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് തരാം അപ്പോൾ ഓക്കെ ഞാനിപ്പോൾ എന്താണ് ആക്കേണ്ടത് എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും അയച്ചുതരണോ ആ അതെല്ലാം അയച്ചുതരാം നിങ്ങൾ വാട്സപ്പിൽ ചെയ്തെങ്കിൽ ഞാൻ അഡ്വാൻസ് നമ്പർ തന്നാൽ ജി പേ അയയ്ക്കാം അഡ്വാൻസ് അഡ്വാൻസ് വേണോ ആ ആ ഗൂഗിൾ പേ ഞാനയച്ചുതരാം ആ ഓക്കെ ശരി ആ ഓക്കെ ശരി താങ്ക്സ്